ഉണ്ടല്ലോ ഏത് തരത്തിലുള്ള സാധനം ആണ് വേണ്ടത് ഏത് തരത്തിലുള്ള സാധനം ആണ് വേണ്ടത് ഫ്ലേവറ് വ്യത്യാസം ആയിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ട് ആ ഏതാണ് ആവശ്യം എങ്കിൽ അത് അനുസരിച്ച് നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും ഒരുപാട് സെല്ലേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ അത് ഹോം ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും മിതമൊ തുച്ചം ഗുണമോ ഇത് എങ്ങനെയാണ് ആ പായ്ക്കറ്റാക്കി തരണോ ഓക്കെ കസ്റ്റമറ് പറയുന്നത് പോലെ തന്നെ ചെയ്തേക്കാം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ആണ് ഇത് കൊടുക്കുന്നത് നമുക്ക് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾ സാധനം എടുക്കുന്നത് അനുസരിച്ചിരിക്കും എണ്ണം അനുസരിച്ചിരിക്കും കേട്ടോ ഓക്കെ നിങ്ങൾ എത്ര സാധനം എത്ര എത്ര മാത്രം എടുക്കും അതിന് അനുസരിച്ച് നമ്മൾ റേറ്റ് താഴ്ത്തി തരും നമ്മൾ ഏറ്റവും വില കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങക്ക് മറ്റ് ഹോൾസെയിൽ റേറ്റിനൊക്കെ ഇങ്ങനെ അന്വേഷിക്കാവുന്നതാണ് അപ്പൊ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഏറ്റവും കുറവുള്ളത് ഞങ്ങൾ എടുത്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്വീറ്റ്സ് എന്നാണ് വേണ്ടത് ജിലേബി ജിലേബി ലഡു ഹലുവ അങ്ങനെ എന്തേലുമൊക്കെ മതിയോ ആ ഹാ ഹാ നിങ്ങൾ ബർത്ത്ഡേയ്ക്ക് ഇത്രയേ കൊടുക്കുന്നുള്ളോ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സാറ് പറഞ്ഞാൽ മതി ഓ ഓ ഓ ഓക്കെ ഓക്കെ പറഞ്ഞാൽ മതി കേട്ടോ കോൺടാക്റ്റ് ചെയ്യ്താൽ മതി ഓക്കെ ശരി ആ